തീര്ച്ചയായിട്ടും സാങ്കേതികവിദ്യ എല്ലാ മനുഷ്യര്ക്കും അടിസ്ഥാന വിഷയമായി പഠിക്കണം എന്നുള്ള അതിന് വിഷയമായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ സാങ്കേതികവിദ്യ ഇനിയുള്ള കാലം നമ്മള്ക്ക് സാങ്കേതികവിദ്യയെ ആശ്രയിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് സാങ്കേതികവിദ്യ നമുക്ക് ഈ നമ്മൾ വിചാരിക്കും ഹയർ ഹൈലി എജ്യൂക്കേറ്റഡ് വ്യക്തികള്ക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് ഈ സാങ്കേതികവിദ്യ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ കൊണ്ടും ഈ ഈ ഇതിന്റെ പ്രയോഗവും ഈ സാങ്കേതികവിദ്യ എങ്ങനെ പഠിക്കാം എല്ലാവര്ക്കും പഠിക്കാന് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചും വളരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇത് നമുക്ക് ഇത് അറിയാവുന്നവരില് നിന്നും ഒരു ഒരു പ്രദേശത്തുള്ള ഒരു വ്യക്തികള്ക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകൾ മുഖേനയും മറ്റുള്ളവര്ക്ക് പഠിപ്പിച്ച് കൊടുത്ത് ഈ സാങ്കേതികവിദ്യ ഒരു അടിസ്ഥാന വിഷയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അതില് നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ ഈ വെ വ്യക്തികള്ക്കും അതുപോലെ തന്നെ സമൂഹത്തിനും വളരെ പ്രയോജനം ചെയ്യുന്നത് ആണ് എന്ന് മനസ്സിലാക്കി ഈ സാ ഈ സാങ്കേതികവിദ്യയെ എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കണം എന്നാണ് ഞാന് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ ഇത് എങ്ങനെ പ്രാവര്ത്തികമാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ഗവണ്മെന്റ് തലത്തില് അതിനെ കുറിച്ചൊരു പഠനം നടത്തി നമുക്ക് അറിയാം പല ആ ഏജിലുള്ള മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസം കൂടിയവർ ഉണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞവർ ഉണ്ട് പക്ഷേ ഇവര്ക്കൊക്കെ ഇത് എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ച് ഒരു ഒരു ഒരു ഒരു സ്റ്റഡി നടത്തി അതില് നിന്ന് ഉണ്ടാകുന്ന ആ ഒരു റിപ്പോര്ട്ട് സര്ക്കാരിന്റെ മുന്നില് വെച്ച് എല്ലാവരും ഈ സാങ്കേതികവിദ്യ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ നല്ല വശങ്ങളെ കുറിച്ചും അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ വിദ്യ എല്ലാവരും കൈമുതലാക്കണം എന്നതാണ് എന്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് സാങ്കേതികവിദ്യയെ കുറിച്ച് പഠിക്കുന്നത് എല്ലാ വഴിക്കും അത് എല്ലാവര്ക്കും പഠിക്കാനുള്ള ഒരു അടിസ്ഥാന വിഷയമായിട്ട് നമ്മളൊരു ബേസിക്ക് ബേസിക്ക് ബേസിക്ക് പ്രിന്സിപ്പള്സ് അതായത് അതിന്റെ എങ്ങനെ ബേസിക്ക് ആയിട്ട് നമ്മൾ ഇതാ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് സമൂഹത്തിലും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും എല്ലാം പ്രയോജനപ്രദമാവും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് അതിനുവേണ്ടിയിട്ട് മുന്കൈ എടുത്ത് അടിസ്ഥാനവിഷയമായി അത് സ്കൂൾ ലെവലില് തന്നെ സാങ്കേതികവിദ്യ പാ നമ്മളെ ചെറുപ്രായത്തില് തന്നെ സ്കൂളുകളില് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ സാങ്കേതികവിദ്യ കൈമുതലാക്കാനുള്ള പാ അടിസ്ഥാന പാഠങ്ങൾ സ്കൂള് ലെവലില് തന്നെ ആരംഭിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഈ വിഷയത്തില്